പോഷകാഹാരക്കുറവ് നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ വലിയ പ്രശ്നമല്ലെങ്കിലും കുറച്ചുനാൾ മുമ്പ് വരെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയം തന്നെയാണ് ഉദാഹരണത്തിന് കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറ് ആയിട്ട് സമയാ സമയങ്ങളിൽ ആഹാരം കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഒരു വളരെ ഒരു ഫാക്ടറാ ഒരു കാരണമായിട്ട് നിലനിന്നിരുന്നു പലയിടത്തും പലസ്ഥലത്തും അത് ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളിലൂടെ അവർ ഈ റേഷൻ ഷോപ്പ് റേഷൻ കടകളിലൂടെയൊക്കെ എല്ലാവർക്കും നല്ല ഭഷ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളിലൂടെ എല്ലായിടത്തും നല്ല നല്ല ഭക്ഷണസാധനങ്ങൾ എത്തിക്കുകയും അതുവഴി കുറേ പരിധിവരെ

റിസർച്ചുകളും ഇതിനെപ്പറ്റി പല പഠന ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി പുതിയ പുതിയ കാർഷിക വിളകൾ ഫല പുഷ്ടിയുള്ളതും എന്നാൽ ചിലവ് കുറച്ച് കൃഷി ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള പല കാർഷിക വിളകളും പല പരിശീലനങ്ങളിലൂടെ നിർമ്മിക്കുകയും ചെയ്തതിലൂടെ ഈയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മുടെ ഗവൺമെൻറ്റും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂട്ടായ്മയിലൂടെ ഒരു കൂട്ടായ്മയുടെ ഒരു പരിശ്രമത്തിലൂടെയാണ് ഇതെല്ലാം നമ്മൾ മനുഷ്യർ സോൾവ് ചെയ്യുന്നത്